ആ ചേച്ചി ആ ആ ഒരു റൂമ് പണിയണം പറഞ്ഞ് ഉണ്ടായിരുന്നില്ലേ വിളിച്ചിട്ട് ഉണ്ടായിരുന്നില്ലേ അതെ അല്ലേ നമുക്ക് ഇപ്പോൾ ഇത് എവിടെയാണ് പണിയണ്ട റൂഫ് ടോപ്പിൽ ആണോ മുകളിൽ ആണോ ഓ ആ അപ്പോൾ നമുക്ക് ഇപ്പോൾ എൽ സ്റ്റോറേജ് റൂമ് അല്ലേ വേണ്ടതെന്ന് പറഞ്ഞത് ആ സ്റ്റോറേജ് റൂമ് ഈ ചെറുത് അല്ലേ ആ ചെറുത് നമുക്ക് വലിയ റേറ്റ് ഒന്നും വരില്ല കാരണം ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്നാമത് എല്ലാം കെട്ടി കഴിഞ്ഞ ആണല്ലോ ഇനി മുകളിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു റൂമ് എടുക്കുകയല്ലേ വേണ്ടുള്ളൂ നമുക്ക് വലിയ റേറ്റ് ഒന്നും വരില്ല ചെറിയ റേറ്റിനെ വരൂള്ളു ആ ലേബർ ചാർജും പിന്നെ കുറച്ച് നമുക്ക് ഇപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ചെറിയ സ്ക്വയർ ഫീറ്റ് മതി കുറച്ച് മതി അല്ലെ ഇപ്പോൾ നമുക്ക് ഒരു പത്ത് അമ്പത് മറ്റേ ഹോളോബ്രിക്സ് ഇല്ലേ അതിൻ്റെ കല്ല് ആ അത് ആയിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ ചെങ്കല്ല് മതി ചെങ്കല്ല് ആണെങ്കിൽ അത് ഇപ്പോൾ ഏതാ നിങ്ങൾക്ക് ആ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ആണ് ഇറക്കി തരാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറക്കി തന്നാൽ മതി പിന്നെ അതേപോലെ നമുക്ക് ഇപ്പോൾ കുറച്ച് മെറ്റല് വേണ്ടി വരും അത് ഒരു മെറ്റൽ സിമൻറ്റും പിന്നെ അതേപോലെ സിമൻറ്റ് ഒരു പത്ത് പതിനഞ്ച് ചാക്ക് വേണ്ടി വരും പത്ത് ചാക്ക് അപ്പോൾ പിന്നെ സിമൻറ്റും ഇതും പിന്നെ മറ്റേ എം സാൻഡ് ഇല്ലേ എം സാൻഡ് കിട്ടുവാണെങ്കിൽ മണല് കിട്ടിയാൽ നന്നായിരിക്കും മണല് ഒന്ന് കൂടി നാളെ ഉണ്ടാവും പിന്നെ മണൽ ഇപ്പോൾ കിട്ടാൻ ഇല്ലാത്തതുകൊണ്ട് എം സാൻഡ് ആയാലും കുഴപ്പം ഇല്ല ആ നമ്മളുതന്നെ ആണ് ചെയ്ത് തരിക ആ ഇനി ഇപ്പോൾ ഞാൻ ചിലപ്പമേ ഉണ്ടാവൂ അല്ലെങ്കിൽ ആ ഇത് ഇറക്കാനോ കല്ല് അടിക്കാനോ ആ പരിചയം ഉള്ളവര് ഉണ്ട് ഇത് ഇപ്പോൾ നിങ്ങള് ആയിട്ട് അയക്കുവാണെങ്കിൽ ഞാൻ നമ്പർ ഒന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് കൊണ്ട് വരാൻ പറഞ്ഞാൽ മതി അല്ല അപ്പോൾ ഞാൻ ആയിട്ട് ഇറക്കി എടുത്തിട്ട് വരണെങ്കിൽ അങ്ങനെയും എടുത്തിട്ട് വരാം അത് ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ആണോ കോൺട്രാക്ട് ഇത് ഓക്കെ മാഡം ഞാൻ അവരെ വിളിച്ച് പറഞ്ഞോളാം ഈ വേണ്ട സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കാൻ പറയുക നിങ്ങള് എമൗണ്ട് പൈസ കൊടുത്താൽ മതി ഇപ്പോൾ

ആ വർക്കിന് വരുവാണെങ്കിലും ആ രണ്ട് മൂന്ന് പേര് ഉണ്ടാകും രണ്ട് മെയ്സണും ഒര് കയ്യാളും വശത്ത് രണ്ട് മൂന്ന് പേര് ഉണ്ടാകും ഇത് പെട്ടെന്ന് പഴയ പോലെ ആയിരിക്കില്ലേ അവർക്ക് ആ എണ്ണൂറ് രൂപ വരും ഒരാൾക്ക് മറ്റേ ആ ഒരാൾക്ക് പിന്നെ കയ്യാൾ കൂടുതലും കയ്യാൾക്ക് നമുക്ക് ഒരു അറുന്നൂറ് രൂപ മതി ആവും അഞ്ഞൂറ് അറുന്നൂറ് ആ ഞാൻ ഉണ്ടാകും നമുക്ക് ഇപ്പോൾ ഒര് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പണി തീർക്കാം ചെറിയ റൂമ് അല്ലേ രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെയും തീർക്കാൻ പറ്റും പിന്നെ ഇത്ര ദിവസത്തിന് ഉള്ള് പെട്ടെന്ന് തീർക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത്രയും അത്യാവശ്യം ആണോ ഓക്കെ നമുക്ക് എന്നാൽ ആ അത് നമുക്ക് ഇപ്പോൾ രണ്ട് മൂന്നാല് പേര് ആയിട്ട് വരാം അപ്പോൾ നമുക്ക് രണ്ട് ദിവസത്തിന് ഉള്ള് തീർക്കാം അല്ലേ സെറ്റ് ആക്കാം നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാം പിന്നെ നാളെയോ മറ്റന്നാളോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇന്ന് വിളിച്ച് പറയാം നാളത്തെ കല്ലും വേണ്ട സാധനങ്ങൾ ഒക്കെ അടിച്ച് ഇടാൻ പറയാം അത് കഴിഞ്ഞിട്ട് അവര് രാവിലെ ആ അവര് രാവിലെ വരും രാവിലെ ഉച്ചയ്ക്ക് ഉള്ളിൽ വന്നിട്ട് എല്ലാം സെറ്റ് ആക്കിത്തരും പിന്നെ നമുക്ക് വന്നിട്ട് ഒരുക്ക അല്ലേ വേണ്ടുള്ളൂ പിന്നെ എന്ത് ചെയ്യാ അത്യാവശ്യം കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ അപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ അപ്പോൾ കൊണ്ട് വരാൻ പറയുക

ഇത് നമുക്ക് രണ്ട് ദിവസത്തിന് ഉള്ളിൽ എങ്ങനെയും മാക്സിമം തീർത്ത് തരാട്ടോ ഓക്കെ ശരി